മറ്റേ ഡാൻസിന് ഞാൻ പാട്ട് എടുക്കുന്നത് ഫോണിൽ നോക്കിയാണ് കൂടുതലും പാട്ട് എടുക്കുക അല്ലാതെ അല്ലെങ്കിൽ വല്ല കൂട്ടുകാരോട് ചോദിക്കുക എഡി പാട്ട് നല്ലതാണോ അവരുടെ സജഷൻസ് ഒക്കെ മനസ്സിലാക്കിയായിരിക്കും ഞാൻ പാട്ടൊക്കെ എടുക്കുന്നത് പിന്നെ ആണെങ്കിൽ അവരോട് ചോദിക്കും എഡി ഈ പാട്ട് കൊള്ളാവോ അങ്ങനെയാണ് നോക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കണ്ട സോങ് ഏതാണ് കൂടുതലും ഇൻറർനെറ്റ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഡാൻസിന് പണ്ട് ഇതൊക്കെ ഇതിനൊക്കെ മുന്നേ നോക്കുന്നത് സി ഡി നല്ല സി ഡി ക്ക് അകത്തൊക്ക നല്ല നല്ല ഡാൻസുകളുടെ പാട്ടും ഒക്കെ വരുന്നുണ്ട് അത് നോക്കി എടുക്കുമായിരുന്നു അല്ലാതെ ഒന്നും എടുക്കാറില്ല